ഹലോ ഹലോ ആ ഞാനേ ദിൽഷ ഒരു റിട്ടേ പോലീസുകാരി ആണേ എനിക്ക് ഇപ്പോൾ ഞാൻ കൊല്ലത്ത് ആണ് വർക്ക് ചെയ്തിരുന്നത് എനിക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് എൻ്റെ പത്ത് വയസ്സുള്ള മോൾക്ക് സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത് ആയിരുന്നു ആ

ആ അവൾ അവിടെ സ്കൂളിൽ പോയികൊണ്ടി ഇവിടെ സ്കൂളിൽ പോയികൊണ്ടിരുന്നതാണ് ആ അതിനെ ആ ക്ലാസ് നാലം ക്ലാസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവോ ആ അ അതെ നാലാം ക്ലാസ്സിൽ

ഓക്കെ ആ ആ അതെ അതെ അവൾക്ക് തൊണൂറ്റി അഞ്ചു ശതമാനം മാർക്ക് ഉണ്ട് ആ ഉണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസിലാവുന്ന കുട്ടിയാണ് സ്പോർട്ട്സിലും ആർട്ട്സിലോക്കെ അവൾക്ക് താൽപര്യം ഉണ്ട് ആഹാ ആ ഓക്കെ ഡൊണേഷൻ മാത്രമാണോ ഫീസോ

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ആ അവിടെ വന്നിട്ട് എന്തെങ്കിലും ഇൻ്റർവ്യൂ എന്തെങ്കിലും ഉണ്ടാവുമോ കുട്ടിക്ക് ആ ഓക്കെ ആ എന്നാൽ ഓക്കെ ശരി താങ്ക്യൂ